ആ ഹലോ ഹലോ ഫെഡറൽ ബാങ്ക് പറഞ്ഞോളു ആണ് ഫെഡറൽ ബാങ്കാണ് ഓ എന്തു ലോണാണ് ഉദ്ദേശിച്ചിരിക്കുന്നേ ഏതാണ് കാർഷിക ലോൺ ഓക്കെ പിന്നെ എത്ര രൂപ വേണ്ടിയിട്ടാണ് നാലു ലക്ഷം രൂപയല്ലേ നാല് ലക്ഷം രൂപ എന്നു പറയുമ്പോഴത്തേനും അതിനു പലിശ കൂടുതലാകും മൂന്നു ലക്ഷം വരേ എന്നു പറയുമ്പോഴത്തേനും ഒൻപത് ശതമാനം പലിശയേ ഉള്ളു അതിനകത്ത് നിങ്ങൾക്ക് അഞ്ചു ശതമാനം നാല് ശതമാനം സബ്സിഡി കിട്ടും ബാക്കി അഞ്ച് ശതമാനം നിങ്ങൾ അടച്ചേച്ചാൽ മതി ആ ഒരു ആ അത് ആ ആദ്യത്തെ നാല് ആദ്യം നമ്മൾ നാല് മൂന്ന് ലക്ഷം രൂപാ വരെയുള്ളവർക്ക് അപ്പം എത്ര ഏക്കർ സ്ഥലമുണ്ട് ഒരു ആ ഒന്നരയാണ് ഒന്നര ഏക്കർ ഓക്കെ ഒന്നര ഏക്കറാണ് ഇതിൻ്റെ ഇതായിട്ടുള്ളത് അപ്പം അതിന് എന്തു കൃഷികളതിനകത്തുള്ളത് ഇടവിളയായിട്ടെന്നതിലുമുണ്ടോ ഓക്കെ ഓക്കെ ആ അത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ബാങ്കിൽ വരുമ്പം കരം കെട്ടിയ രസീത് കൊണ്ടു വരണം കേട്ടോ ഈ വർഷത്തെ അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിലേത് കരം കെട്ടിയ രസീത് കൊണ്ടു വരണം പിന്നെ ഒരു അൻപത് രൂപയുടെ മുദ്രപ്പത്രം കൊണ്ടു വരണം ഒരു രൂപയുടെ റെവന്യൂ സ്റ്റാമ്പും കൊണ്ടു വരണം പിന്നേ ഇത് പിന്നേ ആധാരം വെച്ചുള്ളതാണെന്നുണ്ടെങ്കിൽ ആധാരത്തിൻ്റെ ഒരു ഒരു ഒറിജിനലും മുന്നാധാരവും കൊണ്ടു വരണം ഞങ്ങൾക്കത് അഡ്വക്കേറ്റ്സിൻ്റെയടുത്ത് കൊടുത്തിട്ട് അതിന് കമ്പ്ലൈൻറ്റുണ്ടോയെന്നുള്ളത് നോക്കണം ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ മൂന്ന് ലക്ഷം രൂപയെടുക്കാവുന്ന തരത്തിലുള്ള സ്വർണ്ണമുണ്ടെങ്കിൽ സ്വർണ്ണ ഉരുപ്പടികളുണ്ടെങ്കിൽ അതു പണയം വെച്ച് നമുക്ക് കാർഷിക വായ്പയാണേൽ വന്നു പത്ത് മിനിറ്റിനകം ഞങ്ങൾക്കത് ആ പത്തു മിനിറ്റിനകം ഞങ്ങൾക്കത് സംഗതി എല്ലാം ശരിയാക്കി നിങ്ങളുടെ അക്കൗണ്ടിലേക്കിടുക അതിന് നമ്മുടെ കാർഷിക വായ്പയ്ക്ക് അഗ്രിക്കൾച്ചറൽ ലോ പിന്നെ പർപ്പസിനു വേണ്ടിയിട്ട് സ്വർണ്ണം പണയം വെച്ചു നമുക്ക് ഏ ഡീ എൽ ജീ എന്നു പറയും അങ്ങനെ നമുക്കെടുക്കാം അതിന് അതിനുള്ള സ്വർണ്ണം മതി ഇപ്പോഴത്തെ വെച്ചാൽ സ്വർണ്ണത്തിനു ഭയങ്കര റേയ്റ്റായതു കൊണ്ട് ഞങ്ങൾ ഗ്രാമിനൊരു ആ ആ ആ ഗ്രാമിനൊരാ ആ ഇപ്പം ഏഴായിരത്തി മിച്ചം രൂപാ വരുമ്പം ഞങ്ങൾക്കതിൻ്റെ ഒരു നയൻ്റി പേഴ്സൻറ്റേജ് അതായത് ഏകദേശമൊരു ആറായിരം ആറായിരത്തി ഇരുന്നൂറ് രൂപ ഗ്രാമിനു വെച്ച് ഞങ്ങൾക്ക് പണയം തരാൻ പറ്റും അപ്പം അങ്ങനെയെന്നു പറയുമ്പം ഒരു പത്തോ അഞ്ചോ പത്തോ പവനുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ തരാൻ പറ്റും ആ അതു കഴിഞ്ഞിട്ടുമിനി വേണമെന്നുണ്ടെങ്കിലൊരു ലക്ഷം രൂപയ്ക്കു വേറെ ആരുടെയെങ്കിലും വീട്ടിലുള്ളവരുടെ പേരിലാണെങ്കിലും ഏ ഡീ എൽ ജീ വെക്കുകയാണേ കുറഞ്ഞ റേറ്റിനു കിട്ടും നാല് ശതമാനം നിങ്ങൾക്ക് സബ്സിഡി കിട്ടും അപ്പം അങ്ങനെയുള്ള സബ്സികൾ ഗോൾഡും ആൽക്കൊണ്ടു വേണം പക്ഷെ ഇവിടെ ഞങ്ങളുടെ ബാങ്കിലക്കൗണ്ടുണ്ടല്ലോ അല്ലേ ആ ആ അക്കൗണ്ടുണ്ടെങ്കിൽ പിന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ ഗോൾഡുമായിക്കൊണ്ടിങ്ങ് വന്നേച്ചാൽ മതി ഞങ്ങളൊരര മണിക്കൂർ അര മണിക്കൂറെടുക്കില്ല അതിന് മൂന്ന് നമുക്ക് അതു ചെയ്തു തരാൻ വേണ്ടിയിട്ടു സാധിക്കും കുഴപ്പമൊന്നുമില്ല ധൈര്യമായിട്ടു പോരെ